പരമ്പരാഗത നൃത്തം എന്നു പറയുന്നത് നാടോടികളി പിന്നെ തിരുവാതിര മാർഗ്ഗംകളി പിന്നെ കോലുകളി ഇതിലൊക്കെ ഓരോന്നിനും ഓരോ ഐതിഹ്യങ്ങളുണ്ട് പിന്നെ തിരുവാതിരക്കളി ഓണവുമായൊക്കെ ബന്ധപ്പെട്ട് പോകുന്നു ക്രിസ്ത്യൻ ക്രിസ്ത്യൻസിൻ്റെ മിക്ക ഒരു എല്ലാ ഫംഗ്ഷനിലും ഒഴിച്ചുകൂടാത്ത ഒരു കളിയാണ് മാർഗ്ഗംകളിയും കോൽക്കളിയും പെരുന്നാളായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ അത് നമ്മുടെ മാർത്തോമാ ക്രിസ്ത്യാനികൾ അതായത് യേശുവിൻ്റെ ശിഷ്യൻമാരിൽ പന്ത്രണ്ട് പേരിലൊരാളായ തോമസ് ഭാരതത്തിൽ വരികയും അതിനെയൊക്കെ അനുസ്മരിച്ച് നടത്തുന്ന ഒരു അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് പിന്നെ മാർഗ്ഗംകളിയിലൂടെ അവിടെ അവതരിപ്പിക്കുന്നത്